നമ്മൾ നല്ല പാട്ടൊക്കെ വെച്ച് നല്ലരീതിയില് ഡാൻസിങ്ങ് ഒക്കെ ചെയ്യുമ്പോള് ആൾക്കാർക്കൊരു സന്തോഷവല്ലേ ഉള്ളിൻ്റെ ഉള്ളിൽ പിന്നെ നമ്മുടെ ശാരീരികമായിട്ട് നമുക്ക് നമ്മുടെ കൈകളും കാലുകളും ഒക്കെ ഒന്ന് നല്ല രീതിയില് ചലിപ്പിക്കാനും അത് അതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ നല്ലരീതിയില് പാ സ്വാധീനിക്കും നല്ല പാട്ടുകളൊക്കെ കേട്ട് ഡാൻസൊക്കെ ചെയ്ത് കഴിയുമ്പോള് നമുക്ക് നമ്മുടെ ഒര് വ്യായാമം പോലെയാണ് നമുക്ക് അത് അനുഭവപ്പെടുന്നത് അത് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല ഒര് ഉത്തമ ഒരിതാണ് ഡാൻസിങ് ആരോഗ്യം ആരോഗ്യം നൃത്തത്തിന് ആരോഗ്യം നല്ലൊരു ആരോഗ്യമുള്ള ഒരു വ്യക്തി നൃത്തമൊക്കെ ചെയ്ത് നല്ല ഇതൊക്കെ നടത്തുന്നത് നല്ല കാര്യമൊക്കെയാണ് ഒത്തിരി അങ്ങ് അമിതമായിട്ട് ആകുകയും ചെയ്യരുത് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് നൃത്തം ചെയ്യാൻ പറ്റുന്നെങ്കില് നല്ലൊരു കാര്യമാണ് അത് നമ്മളെ ആരോഗ്യപരമായിട്ട് നമ്മളെ ഒത്തിരി നല്ല രീതിയിൽ തന്നെ അത് നമ്മളെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്